കൃഷി മൃഗസംരക്ഷണം ചെറുകിട ബിസിനസ്സ് മരപ്പണി അറ്റ കുറ്റപ്പണി മില്ല് കോഴി വളർത്തൽ പശു വളർത്തൽ തുടങ്ങിയ പ്രാദേശിക തൊഴിലുകളെ കുട്ടികളുടെ കുട്ടികളിൽ വിവിധ രീതിയിൽ പഠിപ്പിക്കാൻ സാധിക്കും ഇതെല്ലാം കുട്ടികളിൽ പ്രാഥമികമായി നൽകേണ്ട അറിവുകളാണ് പ്രാഥമ ക്ലാസ്സുകളിൽ തന്നെ കുട്ടികൾക്ക് ഇതിനെപ്പറ്റിയുള്ള ബേസിക് നോളജ് ഉണ്ടായിരിക്കണം അത് അധ്യാപകരിലൂടെയാണ് നേടി എടുക്കാൻ സാധിക്കുക ഈ പ്രാദേശിക തൊഴിലിൽ തൊഴിൽ തൊഴിലുകൾ എല്ലാം തന്നെ കുട്ടികൾക്ക് അറിവുള്ളത് ആയിരിക്കും അവരിൽ അവർക്ക് ചുറ്റും കാണാൻ സാധിക്കുന്ന തൊഴിലുകളൊക്കെ ആയിരിക്കും ഈ പ്രാദേശിക തൊഴിലുകൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കുള്ള അറിവുകളിൽ കുട്ടികൾ കുട്ടികൾക്കോൾറെഡി ഉള്ള അറിവുകളെ വളർത്തുന്ന രീതിയിൽ അതിനോട് കൂട്ടി യോജിപ്പിച്ച് കൊണ്ട് തന്നെ ഈ അറിവുകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം കൃഷീനെപ്പറ്റി പഠിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ കൃഷീനെപ്പറ്റി പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഉറപ്പായിട്ടും എന്താണ് കൃഷി ഏതൊക്കെ തരത്തിലുള്ള കൃഷി ഉണ്ടാവുക എന്ന് അവൻ്റെ ചുറ്റുപാടുകളിലൂടെ മനസ്സിലാക്കിയിട്ട് ഉണ്ടാകും അല്ലെങ്കിൽ അദ്ധ്യാപകൻ്റെ നേതൃത്വത്തിൽ കൃഷി അവരുടെ ചുറ്റുമുള്ള കൃഷികൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അത് കൃഷി ചെയ്യുന്ന സമയം ഏതാണ് ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അതിനെ പറ്റിയൊരു ബേസിക് നോളജ് കുട്ടികൾ സൃഷ്ടിക്കുക അതായത് അവരിൽ ചുറ്റും ഈ ഇന്ന ഇന്ന കൃഷികൾ നടക്കുന്നുണ്ട് ഈ കൃഷിയിലൂടെ ഇതാണ് പ്രതിഫലം കിട്ടുക ഇതൊക്കെ കുട്ടികൾക്കുള്ള അറിവുകൾ കുറച്ചും കൂടീം ചോദിച്ച് മനസ്സിലാക്കി അവരിൽ അത് ഉറപ്പിക്കുക പിന്നെ കൂടുതലും ഈ അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് പിയർ ഗ്രൂപ്പ് പിയറായിട്ട് ഡിസ്കഷൻ നടത്തുന്ന ഡിബേറ്റ് നടത്തുന്ന ഇങ്ങനത്തെ ഡിസ്കഷനായിരിക്കും ഇത് പഠിക്കാൻ കൂടുതൽ ഉപയോഗപ്പെടുക അതായത് ഒരു കുട്ടിയിൽ ഒരു കുട്ടീടെ പരിസരത്ത് നടന്ന കൃഷിയായിരിക്കില്ല മറ്റൊരു കുട്ടീടെ പ്രദേശത്ത് കാണുക ഇതേപ്പറ്റി ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് സംസാരിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ സമയം നൽകിയാൽ ഇവർ ഇതിനെപ്പറ്റി സംസാരിച്ച് ഇവരിൽ ഒരു ബേസിക് നോളജ് ഉണ്ടാക്കി എടുക്കും പിന്നെ മൃഗസംരക്ഷണം സ്കൂളുകൾ തന്നെ ചെറിയ രീതിയിലുള്ള മൃഗസംരക്ഷണം പ്രോത്സാഹിപ്പിക്കാവുന്നതാണ് ഈ തേനീച്ച കൂട് പോലെ അതുപോലത്തെ എന്തെങ്കിലും തരത്തിലോ അല്ലെങ്കിൽ ജൈവ വൈവിധ്യ പാർക്കുകൾ അതിൽ കുറെ മത്സ്യത്തെ ഉൾപ്പെടുത്തി മത്സ്യ കൃഷി നടത്തിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു ചെറിയ കൃഷി രീതികൾ സ്കൂളുകൾ തന്നെ പ്രോത്സാഹിപ്പിക്കാം പിന്നെയുള്ള മൃഗ സംരഷ്ണം ഈ വീ ഇ കു പറഞ്ഞ പോലെ തന്നെ കുട്ടികളിലെ വീടുകളിൽ എന്തൊക്കെ മൃഗങ്ങളെ വളർത്തുന്നുണ്ട് എന്നൊക്കെ ചോദിച്ച് അത് മനസ്സിലാക്കാം ഇതിന് വേണ്ടിയൊരു ഡിസ്കഷൻ നടത്താം പിന്നെ ഇങ്ങനെ അത്യാവശ്യം നല്ല വലിയ രീതിയിൽ ഫാം നടത്തുന്നവരുടെ ഫാമെല്ലാം പോയി സന്ദർശിച്ച് കുട്ടികളിൽ അങ്ങനെ കുറച്ച് അറിവുകളും സൃഷ്ടിക്കാൻ സാധിക്കും പിന്നെ ചെറുകിട ബിസിനസ്സ് ചെറുകിട ബിസിനസ്സും ഈ പറയുന്നത് പോലെ കുട്ടികളെ പ്രവർത്തനത്തിലൂടെ പഠിപ്പിക്കാൻ ഇത് ഒരു നമുക്ക് ഒരു സ്കിറ്റായിട്ട് കൊടുത്തോ ത പല തരത്തിലുള്ള ബിസിനസ്സുകൾ പരിചയപ്പെടുത്തി ഒരു സ്കിറ്റ് പോലെ നൽകിയിട്ട് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് കൂടുതൽ ബിസിനസ്സിനെപ്പറ്റി ഒരു അവയറുണ്ടാക്കാൻ സാധിക്കും പിന്നെ മരപ്പണി അറ്റകുറ്റപ്പണി മില്ല് ഇതെല്ലാം ഇതിനെല്ലാം വേണ്ടി ഒരു വർക്ക് ഷോപ്പ് നൽകുന്നതായിരിക്കും കൂടുതൽ ഉത്തമം ഇതിലൂടെ കുട്ടിക്ക് അത് എത്രത്തോളം അധ്വാനം വേണ്ട ജോലിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ചെയ്യുന്നവർ ഏതൊക്കെ ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൽ കുട്ടികൾക്ക് എന്തോരെ പങ്കെടുക്കാൻ സാധിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അതായത് കുട്ടികൾക്ക് ആ കഴിവുണ്ടോ എന്ന് പറയാൻ സാധിക്കും പിന്നെ ഒരു വർക്ക് ക്ഷോപ്പ് ഇതുപോലെ നടത്തുന്നതിലൂടെ അവർക്ക് ഈ ജോലീനെപ്പറ്റി ഒരു ബേസിക് നോളജും ഉണ്ടാക്കാൻ സാധിക്കും അതുപോലെ അധ്യാപകർക്ക് കുട്ടികളെപ്പറ്റി ഒരു ഒന്ന് വിലയിരുത്താൻ സാധിക്കും അവരെ ആർക്ക് ആരെല്ലാമാണ് തുടർന്നുള്ള മത്സരത്തിന് കൊണ്ട് പോകാൻ സാധിക്കുക ആരെ ഒക്കെയാണ് പ്രോത്സാഹിപ്പിച്ചാൽ അവരെ വളർത്തി കൊണ്ട് വരാൻ സാധിക്കുക എന്നൊക്കെ അറിയാൻ സാധിക്കും പിന്നെ ഈ കോഴി വളർത്തൽ പശു വളർത്തൽ തുടങ്ങിയ സ് ഇതെല്ലാം കുട്ടികളെ വീട്ടിൽ തന്നെ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക അതായത് ഇതൊക്കെ നമുക്ക് ചെറിയ രീതീലും തുടങ്ങാൻ സാധിക്കും എളുപ്പമുള്ള കാര്യങ്ങളാണ് എന്നൊക്കെ കുട്ടികൾ മനസ്സിലാക്കി ഒരൂ ഇതൊക്കെ ജൈവമായി തന്നെ ഉൽപാദിപ്പിക്കാൻ സാധിക്കും ഒരു സൈഡെഫക്റ്റൊന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്നും കൂടെ മനസ്സിലാക്കുന്ന തരത്തിൽ അദ്ധ്യാപനത്തെ മുന്നോട്ട് കൊണ്ട് പോകാം ഇതുപോലെ നമ്മൾ കുട്ടികളിൽ ഈ ജോലികളെപ്പറ്റിയൊക്കെ ഒരു ബേസിക് അവേർനസ്സ് കൊടുക്കുകയും ഇതൊരു ചെറിയ രീതിയിൽ അവരെക്കൊണ്ട് ചെയ്യിപ്പിക്കേം ചെയ്താൽ നമുക്ക് ഈ ജോലികളെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ വിളകളെക്കുറിച്ച് മറ്റ് തൊഴിലുകളെക്കുറിച്ചും ആരാണവരെ പഠിപ്പിക്കുന്നത് എന്ന ചോദ്യത്തിൽ ഇത് അധ്യാപകരാണ് മെയിനായിട്ടും ഇതിന് മുൻഗണന നൽകേണ്ടത് അതായത് അധ്യാപകരുടെ നേതൃത്വം നേതൃത്വത്തിൽ കുട്ടികൾക്ക് ഇന്ന ജോലികളെ പറ്റിയൊക്കെ അറിവ് ലഭിച്ചു അല്ലെങ്കിൽ ഇന്ന ജോലികളൊക്കെ പറ്റി കുട്ടികൾക്ക് ഒരു ബേസിക് അവേർനസുണ്ടെന്ന് അധ്യാപകർ ഉറപ്പ് വരുത്തണം ഇതിന് അധ്യാപകർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കർഷകനെ അതായത് ഒരു നാട്ടിൽ അറിയപ്പെടുന്നൊരു കർഷകനെ നമുക്ക് സ്കൂളിൽ കൊണ്ട് വന്ന് വിദ്യാർത്ഥികളായിട്ട് നേരിട്ട് ഒരു സംവാദത്തിൽ ഏർപ്പെടുത്താം അവരോട് കുട്ടികൾക്ക് കുറച്ച് നേരം സംസാരിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം പിന്നെ ഈ ആ പ്രദേശത്തിനടുത്ത് ഉള്ളൊരു കൃഷി ഭവന് കുട്ടികളെ സന്ദർശിപ്പിക്കേം കുട്ടികളുടെ നേതൃത്വത്തിൽ കുറച്ച് കൃഷികൾ ആരംഭിക്കുക ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും പിന്നൊരു ജൈവ വൈവിധ്യ പാർക്ക് ഒരു എല്ലാ സ്കൂളുകളിലും ഉണ്ടായിരിക്കണം അത് കുട്ടികളുടെ നേതൃത്തിൽ സൃഷ്ടിക്കാനും അധ്യാപർക്ക് അതിന് അതിനെ നേതൃത്തം കൊടുക്കാൻ ഒക്കെ സാധിക്കണം പിന്നെ അധ്യാപകർക്ക് ചെയ്യാൻ പറ്റുന്ന സാ കാര്യമാണ് മാതാപിതാക്കളും ആയിട്ട് ഒത്തോണ്ട് കുട്ടികൾക്ക് കൂടുതൽ ഇങ്ങനെ കൃഷിയുമായിട്ടും അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രാദേശിക തൊഴിലുമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ കുട്ടികളേം കൂടേം ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകുമ്പോൾ കുട്ടികളേം കൂടേം കൂട്ടിക്കൊണ്ടു പോയി അവർക്ക് ഒരു പ്രാക്ടിക്കൽ നോളേജ് ഇതിനെപ്പറ്റി ഉണ്ടാക്കി കൊടുക്കാൻ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്